അതാത് പ്രദേശത്ത് വിനോദ സഞ്ചാരികൾക്ക് വരാനും പോകാനുമുള്ള യാത്രാ സൗകര്യങ്ങള് എവിടെയൊക്കെ ലഭ്യമാകുമെന്നുള്ള കൃത്യമായ അറിയിപ്പുകള് കൊടുക്കാം അതുപോലെ ഒരു ചാർട്ട് ചാർട്ട് വൈസ് അവർക്ക് ഒരു ലൊക്കേഷൻ ഇന്ന രീതിയിൽ പോയാൽ ഇന്ന സ്ഥലത്ത് എത്താം എന്നുള്ള രീതിയിലുള്ള നിർദേശങ്ങൾ നൽകാം അതുപോലെ പിന്നെ പോകുന്നതിന് ഏതൊക്കെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കുറച്ച് പേരെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് അതിനുള്ള ഒരു അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കത്തക്ക വിധം ടാക്സികളോ ഓട്ടോയോ ബസോ കാറോ ഒക്കെ പോകാനുള്ള ഒരു കുറച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവർക്കുള്ള ഫോൺ നമ്പറുകള് കളക്ട് ചെയ്ത് അത് സമൂഹമാധ്യമ വേദികളില് പ്രദർശിപ്പിച്ച് അങ്ങനെ അവർക്ക് അത് ഇഷ്യൂ ചെയ്യാം പിന്നെ അവർക്കുള്ള ഫുഡ് എവിടെ കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് അറിയിപ്പ് കൊടുക്കാം താമസ സൗകര്യം എവിടെ കിട്ടുന്നതിനെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കാം ഏതൊക്കെ സ്ഥലങ്ങള് കാണാൻ പറ്റുവെന്നുള്ളതിനെ കുറിച്ച് അറിയിപ്പ് കൊടുക്കാം പിന്നെ ഈ എങ്ങനെ അവരുടെ സുരക്ഷ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർക്ക് എന്തെങ്കിലൊരു ആപത്ത് വന്നാൽ ഒരു ഹോസ്പ്പിറ്റല് അത് അല്ലെങ്കില് എന്തെങ്കിലൊരു പിന്നെ മോഷണമോ കവർച്ചയോ അങ്ങനൊക്കെ സംഭവിച്ചാൽ അവർക്ക് വേണ്ട പിന്നെ സഹായം നിയമ സഹായം ലഭിക്കുന്നതിനുള്ള പോലീസ് സ്റ്റേഷനുകളില് അങ്ങനെയുള്ള സംവിധാനങ്ങള് എവിടെയുണ്ടെന്നുള്ളതിനെ കുറിച്ച് അറിയിപ്പ് കൊടുക്കാം അതുകൂടാതെ പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങള് നല്ല പിന്നെ അവർക്ക് ഇനി ഷോപ്പിംഗോ കാര്യങ്ങളോ ഒക്കെ നടത്തണമെങ്കിൽ അവർക്കുള്ള മാർക്കറ്റുകള് എവിടെയാണ് ഷോപ്പിംഗ് സെൻ്ററുകള് എവിടെയാണ് ഇനി ചികിത്സകൾ എന്തെങ്കിലും ആപത്തോ അപകടമോ ഉണ്ടായാൽ ചികിത്സ വേണേ അതിനുള്ള ഹോസ്പിറ്റൽ സൗകര്യം എവിടെയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയുക അറിയിപ്പ് നൽകാം കൂടാതെ സൈറ്റ് സീയിങ്ങിന് പറ്റുന്ന പിന്നെ മേഖലകള് ഇന്നതൊക്കെയാണെന്നുള്ളത് അറിയിപ്പ് കൊടുക്കാം പിന്നെ അങ്ങനെയൊക്കെയുള്ള മേഖലകള് കൊടുക്കാം അതുപോലെ എല്ലാ ഒരു ഗ്രൂപ്പ് അവർക്ക് ഗൈഡൻസ് നല്കാനായിട്ട് ആളുകളെ സംഘടിപ്പിച്ച് അതിൻ്റെ ഒരു പിന്നെ ഇവർക്ക് ഇപ്പം പോകണ്ട ഇപ്പം പരിചയമില്ലാത്തവര് വന്നാല് അവർക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് ഓരോ സ്ഥലത്തേക്കും അവരുടെ വിശദംശങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഓരോരുത്തർക്ക് ഇവരെ ഗൈഡ് ചെയ്യാൻ തക്കവിധം ഗൈഡുകളാക്കി വിടുക അതാത് പ്രാദേശികമായിട്ടുള്ള സംവിധാങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല പിന്നെ അവർക്ക് വേണ്ട എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് അവരോട് ഇടപെടാനും പിന്നെ അതിനൊക്കെയുള്ള ഒരു ട്രെയിനിങ് സമൂഹ മാധ്യമ വേദികളിലൂടെ കൊടുക്കുക ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ടൂറിസം സാധ്യതയുണ്ടെങ്കില് ആ വരുന്നവർക്ക് അവരോട് എങ്ങനെ നമ്മള് പെരുമാറണം പിന്നെ അവര് എങ്ങനെ നമ്മള് ട്രീറ്റ് ചെയ്യണം ഏത് ഏത് ഭാഷ ഉപയോഗിക്കണം അങ്ങനെയുള്ള ഭാഷ പരിചയങ്ങള് കൊടുക്കുക ഭാഷ ഇപ്പം ഇംഗ്ലീഷോ മറ്റുള്ള ഹിന്ദിയോ മറ്റേതെങ്കിലും ഭാഷകളാണെങ്കില് അതിന് അറിയത്തില്ലാത്തവരാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളൊരു ട്രെയിനിങ് കൊടുത്ത് അവരെ അതിന് ബോധവാന്മാരാക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ അത് വഴി നമുക്ക് നമ്മുടെ നാടിന് പ്രയോജനമുള്ള ഉണ്ടാകത്തക്ക രീതിയില് നമുക്ക് മണി ഇങ്ങോട്ട് നമുക്ക് എന്താ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആ ഇങ്ങോട്ട് സമ്പാദിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൻ്റെ ആ ആ ആ സമ്പത്ത് ഉപയോഗിച്ചു നമുക്ക് നല്ല നല്ല കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റും പോരായ്മകളുള്ളത് പരിഹരിക്കാന് പറ്റും അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങള് പിന്ന ആളുകളെ കുറിച്ച് അവബോധം വളർത്തിയതിനു ശേഷം ആ പൈസ ഉപയോഗിച്ച് അങ്ങനെ ലഭിക്കുന്ന നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ നാടിനെ കൂടുതൽ കൂടുതൽ നന്നാക്കി നല്ല ഫസിലിറ്റിസൊക്കെ ഒരുക്കി വരുന്നവർക്ക് ആകർഷകമാകത്തക്ക രീതീയില് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാനും നമ്മളെ കുറിച്ച് ഇവിടെ വരുന്ന ആളുകള് അവരുടെ ദേശങ്ങളിൽ പോയി നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതിനും അപ്പ കൂടുതൽ കൂടുതൽ ആളുകള് ഇങ്ങോട്ട് വരുന്നതിനും അങ്ങനെ വരുന്നവർക്ക് കൂടുതൽ സുരക്ഷയും പിന്നെ എന്താ പറയുന്നത് വേണ്ട സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കാൻ ഇങ്ങനെ നമ്മള് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഈ തരത്തിലുള്ള പുരോഗമനം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി കൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ എസ്ടാബ്ലിഷ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതിൻ്റെതായ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് കൂടുതൽ മേന്മയിലേക്ക് പോകുന്നതിന് ഇടയാവുകയും ചെയ്യും അതാണ് ഒരു അഭിപ്രായം പിന്നെ ആവശ്യമില്ലാത്ത വാർത്തകളൊന്നും കൂടുതൽ എക്സാജുറേറ്റ് ചെയ്യാതെ വരുന്നവര് പല തരക്കാരുണ്ടാവുവല്ലോ അവരെയൊക്കെ നമ്മള് ഡീൽ ചെയ്യാൻ പഠിക്കണം അപ്പം അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവാതെ അവർക്കൊരു നല്ല ഫീലിംഗ് കൊടുത്ത് വിടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോൾ അത് നമ്മുടെ നാടിനെക്കുറിച്ചും വരുന്നവര് വരുന്നവർക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാവുന്നതിനും അവരുടെ നാടുകളിൽ ഇങ്ങനൊരു അവബോധം നമ്മള് ഇങ്ങനെ ചെല്ലുമ്പം ഇന്നിടത്ത് ഇന്ന ഫെസിലിറ്റി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ താൽപ്പര്യം തോന്നിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനും അങ്ങനെ നമുക്ക് കൂടുതല് മണി നമുക്ക് സമ്പത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും അത് വഴി നമ്മുടെ നാട് നന്നാവുന്നതിനും ആളുകൾക്കും പുരോഗതി ഉണ്ടാകുന്നതിനും ഇടയാകും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം